ഞാന് സ്കൂളില് പഠിച്ചിരുന്ന സമയത്ത് കേട്ടിരുന്ന രാജാക്കന്മാരുടെ പേരുകളെന്നു വച്ചാൽ മാര്ത്താണ്ഡവര്മ്മയും പഴശ്ശിരാജയുമാണ് ഇതില് മാര്ത്താണ്ഡവര്മ്മയെക്കുറിച്ച് പറയുകയാണെങ്കില് മാര്ത്താണ്ഡവര്മ്മ തിരുവിതാംകൂര് രാജാവായിരുന്നു തിരുവിതാംകൂറിലെ രാജാവായിരുന്നു ഒരു യോദ്ധാവായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാരെയും ഡച്ചുകാരെയും അയാൾ അടിച്ചോടിച്ചിട്ടുണ്ട് അയാളുടെ സാമ്രാജ്യത്തിൽ നിന്ന് സാമ്രാജ്യത്തിൽ കയ്യേറാന് നോക്കിയത് ബ്രിട്ടീഷുകാരും ഡച്ചുകാരുമായിരുന്നു ഞാന് മാര്ത്താണ്ഡവര്മ്മയെക്കുറിച്ച് അറിയുന്നത് ഒരു ഒരു വലിയ യുദ്ധത്തെപ്പറ്റി കേട്ടാണറിഞ്ഞത് കൊളച്ചില് യുദ്ധമെന്ന് പറഞ്ഞൊരു യുദ്ധം ഉണ്ട് അപ്പം അതിനെപ്പറ്റിയാണ് ഞാന് ആദ്യം ആയി കേൾക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൊളച്ചിൽ യുദ്ധത്തിൽ മാര്ത്താണ്ഡവര്മ്മ ഡച്ചുകാരെ തുരത്തി ഓടിക്കുകയും ഒരു വലിയൊരു വിജയം നേടിക്കൊടുക്കുകയും ചെയ്തു നമ്മുടെ കേരള കേരളത്തിന് വേണ്ടി കേരളത്തിനല്ല തിരുവിതാംകൂര് രാജവംശത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് പരിഷ്കരണങ്ങള് കൊണ്ടുവന്നൊരു വ്യക്തി കൂടിയായിരുന്നു മാര്ത്താണ്ഡവര്മ്മ അടുത്തതായി പഴശ്ശിരാജയെ പറ്റി പറയുകയാണെങ്കിൽ പഴശ്ശിരാജ കേരളത്തിലെ ഒരു ഏറ്റവും പ്രഗല്ഭനായ ഒരു രാജാവായിരുന്നു ബ്രിട്ടീഷുകാരുമായിട്ട് ഒരുപാട് പൊരുതിനിന്നു കാട്ടിലൊക്കെ ഒളിച്ചുനിന്ന് യുദ്ധം ചെയ്തു കാട്ടില്ത്താമസിക്കുന്ന ഒരുപാട് കാട്ടുവാസികളുമായി അദ്ദേഹം ചങ്ങാത്തത്തിലായിരുന്നു അങ്ങനെ അങ്ങനെ അയാളുടെ ഫ്രണ്ട്സായിരുന്നു എടച്ചേനി കുങ്കന് അങ്ങനത്തെ പോരാളികള് അദ്ദേഹം ധീരമായി പോരാടിയാണ് ബ്രിട്ടീഷുകാരോട് ധീരമായി പോരാടിയാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്റെ കുട്ടിക്കാലത്ത് ഈ രണ്ട് രാജാക്കന്മാരെയും പറ്റി കേട്ടാണ് ഞാന് വളർന്നത്